അൽപ്പം സംഗീതത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടുതന്നെ എനിക്ക് പാടാൻ ആഗ്രഹമുള്ള കൂടുതലായിട്ട് ഞാൻ പാടുന്നതും ഞാൻ ക്രിസ്ത്യാനി ആണ് അതുകൊണ്ട് പള്ളി കൊയറിൽ കുർബാനയുടെ സമയത്തും കല്യാണ പരിപാടികളിലും ഒക്കെയും പള്ളി കൊയറിലും ഒക്കെ ഞാൻ പലതവണ പാടിയിട്ടുണ്ട് അപ്പം എൻ്റെ വോയിസ് നല്ലതാണെന്നും പാട്ട് നല്ലതാണെന്നും ഒക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ വീണ്ടും പള്ളി കൊയറിലൊക്കെ പാടുന്നതിനോട് എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് അതിനാണ് എനിക്ക് കൂടുതൾ ഇഷ്ടവും പിന്നെ പള്ളികളെ സംബന്ധിച്ചുള്ള ചെറിയ വാർഷിക പരിപാടികളിലും കുട്ടികളുടെ സ്കൂളിലെ പ്രോഗ്രാമുകളിൽ അങ്ങനെയുള്ള ഫംഗ്ഷനുകളിൽ ചെറിയ മീറ്റിങ്ങുകളിലും ഒക്കെ പ്രാർത്ഥനാഗാനം പാടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ട് പിന്നെ കൂടുതലായിട്ട് പാടിയിട്ടുള്ള കല്യാണ ഫംഗ്ഷനിലും ഒക്കെ സ്റ്റേജിൽ അതായത് വെൽക്കമിനും സ്റ്റേജിൽ പാടാനായിട്ടുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഉള്ള പിന്നെ എൻ്റെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചെറിയ ലളിതഗാന മത്സരങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ അത് വലിയ സമ്മാനങ്ങളോ ഒന്നും അല്ലെങ്കിൽ പോലും ചെറിയ ക്ലാസ്സുകൾ തൊട്ട് പാടിയിരിക്കുന്നതുകൊണ്ട് ചെറിയ അത് ഗ്രൂപ്പ് സോങ്ങുകൾ സമൂഹഗാന മത്സരങ്ങളിലും കൂട്ടുകാരുടെ കൂടെയും പിന്നെ ഡാൻസുകൾക്ക് പിന്നണി പാടാനായിട്ടും അങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങൾ ഉപകരിക്കും ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് അതൊക്കെ എൻ്റെ ചെറിയ മാളുകളിൽ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ കിട്ടിയിട്ടുള്ള അവസരങ്ങൾ മുന്നോട്ട് വന്നപ്പോഴത്തേക്കിന് ഞാനൊരു വീട്ടമ്മ ആണെങ്കിൽ പോലും ഇപ്പോഴും എനിക്ക് അൽപ്പം ഒന്ന് മൂളാനായിട്ട് അതൊരു പ്രചോദനമായി മാറിയിട്ടുണ്ട് ഒരവസരം അന്ന് കിട്ടിയ അവസരം ഇന്ന് എനിക്ക് ഉപകാരപ്പെട്ടതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് പിന്നെ കല്യാണ ഫംഗ്ഷനിലും ഒക്കെ സ്റ്റേജിൽ ആങ്കർ ചെയ്യാനായിട്ട് ആ സമയത്ത് വെൽക്കം ചെയ്യാനും ആങ്കറിങ്ങ് ചെയ്യാനും പിന്നെ ആ സമയത്തൊരു ചെറിയ പാട്ടുകളും കല്യാണത്തിന് തലേദിവസത്തെ ഫംഗ്ഷനുകളിൽ ചെറിയ പാട്ടുകളൊക്കെ പാടാനും നമ്മുടെ ബന്ധുവീടുകളിലുള്ള പ്രോഗ്രാമുകളിലൊക്കെ ചെറിയ പാട്ടൊക്കെ പാടാനുമൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പാടുന്നതിനോടാണ് എനിക്ക് കൂടുതൽ താൽപര്യം അപ്പം എൻ്റെ ബന്ധുക്കളായിട്ട് ഉള്ളവരുടെ ഇടയിൽ നിന്നും അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ ഒരുപാട് പേർ എന്നെ അഭിനന്ദിക്കുവേം എനിക്ക് ചെറിയ ചോ ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ ലഭിക്കുവേം ചെയ്തിട്ടുണ്ട് പിന്നെ കല്യാണ പരിപാടികളിലൊക്കെ ചെറിയ പാട്ടുകൾ അല്ലെങ്കിൽ ആങ്കറിങ്ങിൻ്റെ കൂടെ ചെയ്യുമ്പോഴത്തേന് സാമ്പത്തികമായിട്ട് നമുക്കൊരു സഹായമായിട്ട് എനിക്ക് വന്നിട്ടുണ്ട് ന മുന്നോട്ടും അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ അവതരിപ്പിക്കാനും പാടാനും ആയുള്ള സാഹചര്യങ്ങൾ ഉപയോഗിക്കാനുമാണ് എനിക്കിഷ്ടം എൻ്റെ ചെറിയ സമയങ്ങളൊക്കെ എനിക്ക് മനസ്സിന് സന്തോഷവും നൽകുന്നൊരു ചെറിയ കാര്യമാണ് അതെൻ്റെ ഒരു ചെറിയ ഹോബി ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സമയം എൻ്റെ മറ്റ് കാര്യങ്ങളുടെ ഇടയ്ക്കും അല്ലെങ്കിൽ കുടുംബജീവിതത്തിനിടയ്ക്കും ഞാൻ ആ ഒരു സമയം അതിന് വേണ്ടി അൽപ്പം മാറ്റി വയ്ക്കാറുണ്ട്